എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്ററാണ് ഹീറ്ററെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കാരണമെന്തെന്നു വെച്ചാൽ നമക്ക് രാവിലെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ടൈമൊക്കെ ആകുമ്പോൾ ഇപ്പം വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുതലായിട്ടും വെള്ളം തിളപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിലാണ് അപ്പം അടുപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറക് കാര്യങ്ങളൊക്കെ ആവശ്യം ഉള്ളൊരു ടൈമാണ് അപ്പം വിറക് നമ്മൾ ഇപ്പം വിറകില്ലാത്തൊരു സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഗ്യാസാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നിപ്പോൾ ഒരു മാസം നമ്മൾ യൂസ് ചെയ്യേണ്ട ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റിയാണെങ്കിൽ ഒരു പത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി നമ്മൾ പെട്ടെന്ന് നിറക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹീറ്ററുപയോഗിക്കാം ഹീറ്ററാണെങ്കിൽ നമ്മളിപ്പം ഇപ്പം ജസ്റ്റ് ഒന്ന് കറണ്ടിൽ പ്ലഗിൽ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും വെള്ളം ചൂടായി പത്തു മിനുട്ട് കൊണ്ട് വെള്ളം ചൂടായിട്ട് നമുക്ക് പൈപ്പിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഹീറ്റർ പിന്നെ ഇതിൻ്റെ നെഗറ്റിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കറണ്ട് ചാർജ് കൂടുതലായിട്ട് വരും വേറെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറേ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കറണ്ട് ചാർജാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഈ ഈ ഹീറ്റിംഗിന് വേണ്ടിയിട്ട് നല്ലവണ്ണം തിളക്കുമ്പോൾ തിളക്കുന്നതിനനുസരിച്ച് കറണ്ട് ചാർജ് കൂടുതലായിട്ട് വരും